ഹലോ ആ അതെ ഒരു അംബ്രല കട്ട് സ്കെർട്ട് ആണ് ആ ആ താഴെ ഒന്ന് സ്കാലപ്പൊക്കെ ചെയ്തിരിക്കണം സ്കാലപ്പൊക്കെ വേണം മറ്റേ ആ പ്ലാസ്റ്റിക് നൂലിട്ട് ചെയ്യത്തില്ലേ

ആ അളവ് പഴയത് തന്നെ പിന്നെ സ്കെട്ടാണ് പിന്നെ ടോപ്പ് ഇച്ചിരി ഒരു ത്രീ ഫോർത്ത് കൈ മതി

ലൈനിങ്ങും ലൈനിങ്ങ് വേണം ഹമ് അത് അത് മേടിച്ചാലും മതി ആ ഒരു മൂന്നു മീറ്ററ് വേണ്ടി വരും ഹമ് ഹമ് പേമെൻറ് ഞാൻ മേടിക്കാൻ വരുമ്പോൾ തന്നേക്കാം അത് എത്രയാവും അത് തൈക്കുന്നതിന് അതെ അതെ സിബ് വേണ്ട ഈ കെട്ടു മതി ഈ എലാസ്റ്റിക് മതി ഹ്മ് ഹമ് പാൻറ്റും ഇലാസ്റ്റിക്കും മതി പിന്നെ താഴെ ഇച്ചിരി ലൂസായി കിടക്കണം ആ ചുരി വേണ്ട ഇച്ചിരി ലൂസ് ബോട്ടം മതി ഹമ് അത് അത് വേണ്ട സാധാരണ ചുരിദാർ മതി

ആ അത് മോൾക്കായത് കൊണ്ട് ഒരു കല്യാണത്തിന് പോകേണ്ടതായിരുന്നു അപ്പം മോൾക്കായതു കൊണ്ട് അത് വലിയ ഇഷ്ടം ഇല്ല ഈ അനാർക്കലി ഇഷ്ടമല്ല ഹമ് ആ ഈ നെക്കിലും കുറച്ചു മുത്തൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഹമ് ഹമ് ഹമ് ആ വൈറ്റ് മുത്ത് ആ വൈറ്റ് മുത്ത് മതി ക്രീം ആ വൈറ്റ് മുത്ത് ഹമ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൈയിൻ്റെ അറ്റത്തും പിടിപ്പിച്ചോ നെക്കിലും ആ പിടിപ്പിച്ചോ പിന്നെ ഈ താഴെ സൈഡിൽ പിടിപ്പിക്കാൻ പിടിപ്പിക്കുമോ എങ്ങനെയാണ് ആ അറ്റത്ത് ആ എത്രയാകും ഇരുനൂരി അമ്പത് ആ അത് കുഴപ്പമില്ല ഇരുനൂറ്റി അമ്പത് കുഴപ്പമില്ല എന്നാലും തയ്യൽ നന്നായിരിക്കണം ആ നന്നായിരിക്കണം അത്രയേ ഉള്ളൂ അത് എളുപ്പം കിട്ടത്തില്ലേ എനിക്ക് ആ ഇല്ല ആ അപ്പം എത്രയും പെട്ടെന്ന് അപ്പോൾ ഞാൻ ഐറ്റം ഏ ഷോള് ഷോള് പ്ലെയിൻ മതി അതിൻ്റെ ആ പ്ലെയിൻ സൈഡിൽ ഇങ്ങനെ കുറച്ചു മുത്തൊക്കെ പിടിപ്പിക്കണം ലെയ്സ് എങ്ങനെയാണ് ഈ ലെയ്സ് വച്ചു നല്ലതാണോ അതെങ്ങനെയാണ് ആ ആണോ ഈ ലെയ്സ് വെച്ചിട്ടെ ഒരു മുത്തിങ്ങനെ ഇങ്ങനെ ഞാത്തി ഞാത്തി ഇടുന്നത് നല്ലതായിരിക്കും ഹമ് ആ ആ വീതി കുറഞ്ഞത് ആ എന്നാലും ഈ മുത്ത് ഇങ്ങനെ ഞാത്തി ഇടുന്നത് നല്ലതായിരിക്കും ഹമ് ആയിക്കൊട്ടെ എന്നാൽ ശരി ഹമ് ആ വരുആ വരുമ്പോഴത്തേക്കും ഞാൻ തന്നേക്കാം തയ്യൽ കഴിഞ്ഞു വിളിച്ചാൽ മതി തയ്യൽ കഴിയുമ്പോൾ വിളിച്ചാൽ മതി അപ്പോൾ വരുമ്പോൾ പൈസ തന്നേക്കാം എഴുന്നൂറ്റി അമ്പതെ് എന്നല്ലേ പറഞ്ഞത് ആയിക്കൊട്ടെ ആ ഇരുന്നൂറ്റി അമ്പത് ഞാൻ കൊണ്ടുവന്നേക്കാം ആ ആ ആ വിളിച്ചേക്കാം വിളിച്ചേക്കാം ആ ഞാൻ വരുന്ന സമയത്ത് വിളിച്ചേക്കാം ഹമ് എന്നാൽ ശരി